പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്ന് കൃഷിയിൽ ഒരുപാട് നവീന ഉപായങ്ങൾ നിലവിലുണ്ട് യന്ത്രവൽക്കരണം മുതൽ കൃഷിയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ വരെ ഇതിൽപ്പെടുന്നു പണ്ടുകാലത്ത് ആളുകൾ കലപ്പ ഉപയോഗിച്ചാണ് നിലമുഴാറുള്ളത് അതുപോലെ തന്നെ മനുഷ്യൻ തന്നെയാണ് കളകൾ പറിച്ചുകളയുന്നതും അതുപോലെ വിത്ത് വിതയ്ക്കുന്നതും ആ വിതച്ച് മുളച്ച വിത്തുകൾ പറിച്ച് വീണ്ടും ആവശ്യമായ അകലത്തിൽ നടുന്നതും വിളവെടുക്കുന്നതും കറ്റമെതിക്കുന്നതും എല്ലാം പക്ഷെ ഇന്നുകാലത്ത് നെൽക്കൃഷിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ കാര്ഷികരംഗത്തുണ്ടായ മാറ്റങ്ങൾ നമുക്കറിയാൻ കഴിയും കാരണം ഇന്ന് ട്രാക്ടർ ഉപയോഗിച്ചാണ് നിലമുഴുന്നത് വിത്ത് വിതയ്ക്കാൻ അവിടെ സം യന്ത്രങ്ങളുണ്ടായിരിക്കും അതുപോലെ അത് കൃത്യമായ അകലത്തിൽ നടാനും യന്ത്രങ്ങളുണ്ട് വിളവെടുപ്പ് ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് ആ വിളവെടുക്കുന്ന നെല്ല് മെതിച്ച് കെട്ടുകളായി വൈക്കോൽ വേറെ നെല്ല് വേറെ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോള് ഡ്രോൺ ഉപയോഗിച്ച് വരെ നമ്മൾ വിളകൾക്ക് കീടനാശിനികൾ അടിക്കുന്നുണ്ട് വലിയ കൃഷിത്തോട്ടങ്ങളിൽ കശുവണ്ടിത്തോട്ടങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ എന്റോസൽഫാൻ തളിക്കാൻ വിമാനവും വരെ ഉപയോഗിക്കുന്ന കാലഘട്ടമാണിത് പണ്ട് ഒരു കർഷകന് എന്തെങ്കിലും കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾ അറിയാൻ പണ്ട് തൊഴിലുകൾ ചെയ്തിരുന്നവരോട് ചോദിക്കുക മാത്രമായിരുന്നു ഒരേയൊരു വഴി എന്നാൽ ഇന്ന് അത് മാറി അവർക്ക് ചോദിക്കാൻ കൃഷിഭവനുകളും കൃഷി ഓഫീസറുകളും വന്നു അതുപോലെ തന്നെ ഇന്ന് വിക്കിപീഡിയയുടെ സഹായത്തോടെ നമുക്കറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഉറവിടങ്ങളില് വിവരങ്ങൾ കിട്ടാനുണ്ട് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ കൃഷി വികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരുപാട് ട്രെയിനിങ് സെഷനുകളുമൊക്കെ ഇന്ന് കർഷകർക്ക് നൽകിവരുന്നു അതുകൊണ്ട് തന്നെ മുമ്പത്തെ അപേക്ഷിച്ച് കൃഷിയെന്ന് പറയുന്നത് ഇപ്പോള് അറിവുള്ളവർക്ക് ഒരുപാട് എളുപ്പമായി കൃഷിക്കാർക്ക് അതുപോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസുകളും കാര്യങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃഷി നഷ്ടമായാലും അവർക്ക് ജീവിച്ചുപോകാനുള്ള ഉപായങ്ങൾ കിട്ടുന്നു പണ്ടത്തെപ്പോലെ കൃഷി നാശമായാൽ അവരുടെ ജീവിതം അവതാളത്തിലാകുന്ന അവസ്ഥയല്ല ഇന്ന് നിലവിലുള്ളത്